ഞാൻ നേരിട്ട് പാട്ടുകാരുടെ പെർഫോമൻസുകൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് സിത്താരാന്ന് പറയുന്നൊരു മലയാളം പാട്ടുകാരിയുണ്ട് അപ്പോൾ പാട്ട്കാരീൻ്റെ പെർഫോമൻസ്സാണ് എനിക്കേറ്റോം ഇഷ്ടപ്പെട്ടത് അതുപോരണ്ട് അതുൽ നറുകര അതുപോലെ തന്നെ പല സംഘങ്ങളായിട്ട് വന്ന് പാട്ട്പാടുവല്ലൊ അതുപോലത്തെ ഒരുപാട് ആൾക്കാരുടെ പാട്ട് പെർഫോമൻസ്സ് കണ്ടിട്ടുണ്ട് അപ്പം അതിൽ ഏറ്റോം ഇഷ്ടപെട്ടതാണീ സിത്താരാന്ന് പറയുന്ന സിത്താരേടെ ഒരു ഒരു ശബ്ദംന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് ഭംങ്ങിയുള്ള ശബ്ദവൊന്നുവല്ല പക്ഷെ ഒരു നല്ല രീതിക്ക് കേട്ടാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ശ ശബ്ദം കൂടിതന്നെയാണ് സിത്താരയുടെ ശബ്ദം എന്റെ അനുഭവംന്ന് പറയുന്നത് അത് അത് കേൾക്കുമ്പം തന്നെ നമ്മളെ അത്ര ആഗ്രഹം സിത്താരാന്ന് പറയുന്ന പാട്ട് കാരീനെ നമ്മളത്രയും ഇഷ്ടപ്പെട്ട് നേരിട്ട് ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കാണാനും ആ പാട്ട് കേൾക്കാനുവക്കെ ആഗ്രഹിച്ചാണ് നമ്മൾ ആളെ കാണുന്നത് അപ്പപ്പം അങ്ങനെ ആയൊരു പ്രോഗ്രാമിന് നമ്മളെത്തിപ്പെടുകാ എന്നുള്ളത് അത്രയും ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അങ്ങനെ അതിന്റെ കാര്യങ്ങൾ സംവിധാനങ്ങളെ ചെയ്ത് പ്രൊഗ്രാമിനെത്തിപ്പെട്ടപ്പം എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരു ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലത്ത് ഒരുപാട് മനുഷ്യന്മാർ ഈ സിത്താരേടെ പാട്ട് മാത്രം കേൾക്കാനാഗ്രഹിച്ച് വന്ന ഒരു പാട് മനുഷ്യന്മാർ പെട്ടെന്നാ സിത്താരേടെ പാട്ട് ലൈവായിട്ട് നമുക്ക് കേൾക്കാൻ പ പറ്റുകായെന്ന് പറയുന്നത് തന്നെ വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അന്ന് അന്ന് ആർത്തുല്ലസിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ കൂട്ടുകാര് ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ആ പ്രോഗ്രാമിനെത്തി ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസം തന്നെയാണ് സിത്താരേടെ പ്രോഗ്രാം ഉണ്ടായ ദിവസം പിന്നെ ഇനി ആഗ്രഹം ഉള്ളത് പറയുന്നത് ഹരീഷ് വക ശിവരാമകൃഷ്ണൻന്ന് പറയുന്നൊരു സിങ്ങറിൻ്റെ പാട്ട് പ്രോഗ്രാം കാണുകാന്നുള്ളതാണ് അതുപോലെ തന്നെ ഏ ആർ റെഹ്മാന്റെ പാട്ട് പ്രോഗ്രാം പിന്നെ ഒരുപാട് ആൽമരംന്ന് പറയുന്നൊരു ഒരു കൂട്ടം ആൺകുട്ടികൾടെ ഒരു പ്രോഗ്രാം അതൊക്കെ കാണണംന്ന് ആഗ്രഹമുണ്ട് എന്നക്കെ എന്നെങ്കിലും നടക്കുവെന്നറിയില്ല പക്ഷേ എന്നാലും അതും ഒരുപാടാഗ്രഹമുള്ളത് തന്നെയാണ് ഇത്തരം എനി പറഞ്ഞവരുടെ കൂടെ മാത്രമല്ല ഒരുപാട് ഏത് പാട്ടുകാരന്റെ ആയാലും പാട്ടെങ്ങനെ ആയാലും ഞാനാസ്വദിക്കും അത്രയും പാട്ടിനോട് ഇഷ്ടമുള്ളൊരാളാണ് പാട്ടെങ്ങനെ ആയാലും ഞാനാസ്വദിച്ച് തന്നെ കേൾക്കുകയും ചെയ്യും